വയനാട്ടിൽ പ്രധാനമായിട്ടും പഴശ്ശിരാജയുടെ സ്മൃതിമണ്ഡപം ഉണ്ട് പഴശ്ശിരാജയുടെ അതായത് ശവകുടീരം ഇണ്ട് പഴശ്ശിരാജയുടെ ശവകുടീരം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ മാനന്തവാടി നമ്മുടെ മെഡിക്കൽ കോളേജ് വഴി കുറച്ചു മേലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ പഴശ്ശി കുടീരം എന്നു പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും മുപ്പതുരൂപയുടെ ടിക്കറ്റ് എങ്ങാണ്ടേ ഉള്ളൂ അവിടെ കയറാൻ ഞാൻ അവിടെ പോയിട്ടുണ്ട് പഴശ്ശി കുടീരം സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് നമ്മളെ പുൽപ്പള്ളി മരക്കടവ് ആ ഭാഗത്തായിട്ട് പഴശ്ശിയുടെ ഒരു പ്രതിമയുണ്ട് ഇതൊക്കെ ചരിത്രകാലങ്ങളിൽ നടന്നിട്ടുള്ള അതായത് മറ്റേ നമ്മുടെ ബ്രിട്ടീഷ്കാരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഒരാളാണ് പഴശ്ശിരാജ നിങ്ങൾ എല്ലാർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കറിയാവുന്നത് കാരണം എന്നു വച്ചാൽ പഴശ്ശിരാജ എന്നു പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി ആണ് അതിനകത്ത് നായകൻ നമ്മുടെ വയനാട്ടിൽ നടന്ന യുദ്ധങ്ങളും അതായത് ഈ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ചെയ്തത് പഴശ്ശിരാജയാണ് അപ്പോൾ അത് ഉണ്ട് പിന്നെ എടക്കൽ ഗുഹാന്നു പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അതായത് പഴയ പ്രാചീന കാലഘട്ടക്കാരൊക്കെ അവിടെയാണ് താമസിച്ചത് അവർക്കു വീട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അവിടെ താമസിച്ചതിന് ഉള്ള തെളിവ് എന്നു വച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അവരുടെ എഴുത്തുകളാണ് അതായത് പണ്ട് ഇങ്ങനെ ഈ മലയാളം എന്നു പറഞ്ഞൊരു ഭാഷ ഉണ്ടായിരുന്നില്ല അവരുടെ ഓരോ ചിത്രങ്ങളും ലിപികളൊക്കെ ആയിട്ടാണ് അവിടെ എഴുതി വച്ചേക്കുന്നത് പേപ്പർ പേന ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെത്തെ എന്താ പറയുക ആ ഗുഹയിൽ കല്ലുകളിൽ തന്നെയാണ് ഇവർ എന്തൊക്കെയാണെന്നു വച്ചാൽ എഴുതി വയ്ക്കുക അത് അതേപോലെതന്നെ അവിടെ എഴുതിയും വച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്